ഞാൻ യാത്ര ചെയ്യാറ് ഗരിബ്രത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ള ട്രെയിനാണ് ആ ട്രെയിൻ ട്രിവാൻഡ്രം ടു മഹാരാഷ്ട്ര അങ്ങോട്ട് ആണ് പോണ് മഹാരാഷ്ട്രയിലേക്ക് ആണ് ട്രാവൽ ചെയ്യുന്നത് ഇപ്പം ആ ട്രെയിനിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഫുൾ ബോഗീസും എ സി ആണ് എ സി കമ്പാർട്ട്മെൻറ് എന്ന് പറയുമ്പോൾ തേർഡ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏറ്റവും നല്ലത് ഫസ്റ്റ് ക്ലാസ് തന്നെ ആണ് കാരണം ആ ബോഗി ഒറ്റ ഒരു ക്യാബിൻ നമ്മളെയും ആരും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ വരില്ല അങ്ങനെ പിന്നെ സെക്കൻഡ് ക്ലാസ് പറയുമ്പോൾ ജസ്റ്റ് ഒരു കർട്ടൻ പോലെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫുൾ എ സി തന്നെ ആയിരിക്കും കുറച്ച് കൂടി പ്രൈവസി ഉണ്ടാകും തേർഡ് ക്ലാസെന്ന് പറയുമ്പം സാധാ പോലെ പക്ഷെ എ സിയിൽ ആയിരിക്കും ബട്ട് സ്റ്റിൽ ഫുൾ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്നാൽ നല്ല നീറ്റ്നെസ്സാണ് ഫുള്ള് അതാണ് ഏറ്റവും മെയിനായിട്ട് ഉള്ള ഒരു പ്രത്യേകത നല്ല വൃത്തി ഉണ്ട് ആ വൃത്തി ഉണ്ടകുമ്പം ആ ട്രെയിൻ പിന്നെ ഞാൻ ഇപ്പം യാത്ര ചെയ്തതാണ് ധാനി മഹാരാഷ്ട്ര ആ സ്ഥലത്തേക്ക് ആണ് യാത്ര ചെയ്ത് കൊണ്ട് ഇരിക്കുന്നത്

കൊങ്കൺ വഴി ആണ് ട്രെയിൻ പോകുന്നത് ഞാൻ ഇപ്പം എസ് സിക്സെന്ന് പറഞ്ഞിട്ട് ഒരു ബോഗിയിൽ ആണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത് എൻ്റെ സീറ്റ് നമ്പർ നാൽപ്പത് പിന്നെ ഫുൾ ഫുൾ സൗകര്യം ഉണ്ട് ആൾക്കാർ നല്ല ആൾക്കാർ ആണ് ഇവിടെ വരുന്നത് അങ്ങനെ ഫുൾ റോബറി സാധനങ്ങൾ ഒന്നും ഇല്ല ഫുൾ സേഫ്റ്റി ആണ് പിന്നെ ഫുൾ പുതിയ ടെക്നോളജീസ് ആണ് ട്രെയിനിൽ ഉൾപ്പെടിത്തിയിരിക്കുന്നത് അതുപോലെ ചാർജ് ചെയ്യാൻ ഉള്ള ഒരു പോർട്ട്സ് അങ്ങനത്തെ എല്ലാ അഡ്വാൻറ്റേജസും എല്ലാ രീതികളും ഉള്ള ഒരു സംവിധാനങ്ങളും ഉണ്ട് അവിടെ അതേപോലെത്തന്നെ ടോയ്ലെറ്റ് വാഷ് റൂം പറയുക നമുക്ക് അത് ഫുൾ നല്ല വൃത്തിയും ക്ലീൻ ക്ലീൻലിനെസ്സും എല്ലാം ഉണ്ട് എപ്പം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഫുൾ ക്ലീൻ ഫുൾ എപ്പോഴും വൃത്തിയോടെ ഇരിക്കും പ്രത്യേകിച്ച് അവിടുത്തെ ഉണ്ട് ആ ട്രെയിനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനെ സ്റ്റാഫ് സൂപ്പർബ് ആണ് നല്ല നല്ല ജോലി ആണ് അവർ ചെയ്യുന്നത് അത്രക്കു തന്നെ പിന്നെ അത് തന്നെ യാത്ര ചെയ്യുന്നത് ധാനേക്കാണ് എൻ്റെ വീട് അവിടെ ആണ്